ഞാൻ യാത്ര ചെയ്യാൻ ചെയ്യാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്നിച്ച് ഇരിക്കുന്നൊരു സമയത്ത് ഞാൻ കസിൻ സിസ്റ്റർ കസിൻ കസിൻസ്സൊക്കെ ചേർന്ന് ചിന്തിക്കും ഇങ്ങനെ എവിടെ എങ്കിലും ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് നല്ല ഹാപ്പി മൂടിലായിരിക്കും ഞങ്ങൾ അത് ചിന്തിക്കുന്നത് എവിടെ എങ്കിലും ദൂരം ഒരു എല്ലാവരും മൈൻഡ് ഒന്ന് ഹാപ്പി അക്കാൻ വേണ്ടിയാണ് ഒരു ട്രിപ്പ് പോകാമെന്ന് പറയുന്നത് ഞങ്ങൾ കൊല്ലത്തിൽ കൊല്ലത്തിൽ ഒരിക്കൽ ഞങ്ങൾ ട്രിപ്പ് പോവാറുണ്ട് പല അമ്പലങ്ങളിലും പല പല പല സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇങ്ങനെ ഒക്കെ പോവാറുണ്ട് നല്ല ഗാർഡൻസ്സൊക്കെ കാണാനും ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകാൻ നല്ല രസാണ് കാരണം എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ അമ്മ ഹാപ്പി ആകുന്നു നമുക്ക് അമ്മ ഹാപ്പി ആകുന്നതും നമ്മളെ ഫാമിലിയിലുള്ളവർ ഹാപ്പിയാകുന്നത് ഒക്കെ കാണാൻ നല്ല രസം അവർ ഒന്നിച്ച് പോകുന്നതൊരു വേറെ തന്നെ ഒരു സുഖം യാത്രക്ക്

ഫാമിലി ട്രിപ്പെന്ന് പറഞ്ഞാൽ ഒരു ദിവസം എല്ലാവരും ഒന്നിച്ച് കൂടുന്ന ഒരു സമയമാണ് ഇപ്പം എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു രാത്രി ഇങ്ങനെ ട്രിപ്പിന് പോകുന്നതൊക്കെ നല്ല സുഖമാണ് അത് നമ്മളെ മൈൻഡൊക്കെ ഒരു നല്ലൊരു ഹാപ്പി മൂടിലാക്കും അങ്ങനെ പല ദൂര അമ്പലത്തിലേക്ക് പിന്നെ അവിടെ ഉള്ള ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പിന്നെ അവിടെ താമസിക്കുന്ന സ്ഥലം ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ചിലപ്പൊഴൊക്കെ ഒരു സാഡ് സാഡ് മൊമൻടിലൊക്കെ ഒരു ട്രിപ്പ് പോവാൻ നമുക്ക് തോന്നും അങ്ങനെ എനിക്ക് തോന്നിയതൊരു ഇങ്ങനെ എവിടെ എങ്കിലും ബീച്ചിലോ കടലിൻ്റെ സൈഡ് ഇങ്ങനെ കടൽ കടൽ കാണാനൊക്കെ ഒരു ഇങ്ങനെ തോന്നും നമുക്ക് ഒരു സങ്കടമുണ്ടായാൽ പിന്നെ സ്കൂൾ കോളേജ് ട്രിപ്പിന് പോയിട്ടുണ്ട് കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഊട്ടി അവിടെ ഒക്കെ നല്ല കാണാൻ നല്ല ഭഗിയാണ് പിന്നെ തേയിലത്തോട്ടം പിന്നെ ഗാർഡൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് നല്ല രസം അത് കാണാൻ പിന്നെ ഫാമിലി ട്രിപ്പെന്ന് ഇത് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് പോകുന്നതും ഫാമിലീ ട്രിപ്പും രണ്ടും വ്യത്യാസമാണ് രണ്ടും നമ്മുടെ മൂഡ് മൂഡ് അനുസരിച്ച് നമ്മൾ ഹാപ്പി ആകും കാരണം അവിടെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് നമ്മൾ ഹാപ്പി നല്ലോണം ഹാപ്പിയും അതേ നമുക്ക് നമ്മളെ സെയിം മൈൻഡുള്ള ആൾക്കാരാണ് അപ്പോൾ അതൊരു വേറെ ഒരു ലെവലാണ് പിന്നെ ഫാമിലി ഒന്നിച്ച് പോകുന്നതും നല്ല ഒരു രസമാണ് ഇങ്ങനെ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ കാണുന്നു പിന്നേ അവിടെ ഭക്ഷണങ്ങൾ വ്യത്യാസ്തമായ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു അവിടെ ഉളള പലഹാരങ്ങൾ ട്രൈ ചെയ്യുന്നു പിന്നെ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രസമായ സ്ഥലങ്ങളൊക്കെ കാണുന്നു പിന്നീട് അവിടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒന്നിച്ച് എപ്പോഴും ആരില്ലെങ്കിലും നമ്മളൊന്നിച്ച് ഉണ്ടാകും എന്ന് തോന്നുന്ന ഒരു ഇതാണ് ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ അവർ ഒന്നിച്ച് നമ്മൾ ട്രിപ്പ് പോകുന്നത് നല്ല രസമാണ് ഓക്കെ പിന്നെ നമ്മൾ ദൂരം അമ്പലത്തിലൊക്കെ പോകുന്നത് നല്ലതാണ് ഇങ്ങനേ ഒരു ഭക്തി തീർത്ഥ യാത്ര എന്നൊക്കെ പറയാാം അതിന് അങ്ങനെ പോകുന്നത് നല്ല രസമാണ് പിന്നേ അങ്ങനെ പോയിട്ടുണ്ട് കുറെ സുബ്രഹ്മണ്യം ടെമ്പിൾ പിന്നെ ഗുരുവായുർ പിന്നെ അങ്ങനെ പറശ്ശിനിക്കടവ് അങ്ങനെ എല്ലാം പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഗുരുവായുർ പോയത് ട്രെയ്നിലായിരുന്നു അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് അത് പോയത് അപ്പോൾ ട്രെയ്നിൻ്റെ ട്രെയ്നിൽ ഇരുന്നിട്ട് നമ്മൾ പോയത് നല്ല ഒരു ഒരു ഡേ വേണ്ടി വന്നു ഇരുന്ന് അവിടെ എത്താൻ അപ്പോൾ ട്രെയ്നിൽ പല പല ആൾക്കാരെയും അവരുടെ ഇത് ജീവിത ശൈലികളും അങ്ങനെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒരു ഓരോരോ ആൾക്കാരും വ്യത്യാസമായാണ് കാണപ്പെടുന്നത് അപ്പോൾ ഫാമിലി ഒന്നിച്ച് നമ്മൾ ഒരു ലോഡ്ജിൽ താമസിക്കുന്നതും ഞങ്ങൾ ഈ ഫാമിലി ആയിട്ട് കഥ പറയുന്നതും ഒക്കെ നല്ല ഇതാണ് നമ്മളെ മൈൻഡും ഹാപ്പി ആകും ഈ ട്രാവലിലൂടെ പിന്നേ നമ്മൾ പല സ്ഥലങ്ങൾ കാണുന്നു പിന്നെ ആനത്താവളമൊക്കെ കണ്ടു ആനത്താവളം കണ്ടു പിന്നെ ഗുരുവായൂർ അവിടെ പിന്നെ ഒരു ക്ഷേത്രത്തിലും പോയിരുന്നു അപ്പോൾ നമ്മൾ അറിയാതെ ഹാപ്പി ആയിക്കൊണ്ടു വരും നമ്മൾ എന്ത് സങ്കടവും ഇത് ഉള്ളിലൊതുക്കിയാണ് ആ ഹാപ്പി അത് ഒരു വേറെ തന്നെ സുഖാണ് പിന്നെ പെട്ടെന്ന് വീട്ടിലിരിക്കും പെട്ടെന്ന് നമ്മളെ മാനസികാവസ്ഥ ശരിയാവണന്നറിഞ്ഞിട്ടില്ല കാരണം നമ്മൾ സാഡിലായിരിക്കും അപ്പം ഉണ്ടാകുന്നത് അപ്പം ആ ആ മൂടനുസരിച്ചിട്ട് പോവാൻ പറ്റുന്നത് പറ്റിയത് ഞാൻ ബീച്ചിലേക്കാണ് ബീച്ച് ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മളെ സങ്കടം ഒക്കെ മാറും അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് പോകും അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ ഉണ്ട് കസിൻ സിസ്റ്റെർ ഒന്നിച്ച് ഞങ്ങൾ പോകും അപ്പോൾ ഒരു ഹാപ്പി ആകുന്നതാണ് ഇങ്ങനെ ട്രാവെൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞങ്ങൾ ഞാൻ വീക്കിലി ഞാൻ ടെമ്പിള് വീട്ടിന് അടുത്തുള്ളൊരു അമ്പലം ഉണ്ട് അവിടേക്ക് പോകും അവിടെ മനസ്സ് ഒരു അവിടെ നിന്ന് പ്രാർഥിച്ചാൽ മനസ്സൊക്കെ നല്ല ഒരു ശുദ്ധമായ പോലെയാണ് നമുക്ക് എന്തും പ്രാർഥിക്കാമെന്ന് നമുക്ക് എല്ലാം തുറന്ന് പറയുന്നതും ദൈവത്തിനോടാണ് ആരും കേൾക്കാനില്ല ദൈവം തന്നെയാണ് ഞങ്ങൾ തിരിച്ച് സഹായിക്കാൻ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ടെമ്പിളിലേക്ക് പോകുന്നത് നമ്മളെ എല്ലാം എന്നാൽ ഇത് ട്രാവലിലൂടെ നമ്മൾ നമ്മളെ മൈൻഡിനെയാണ് മാറ്റിയെടുക്കുന്നത് ചില ട്രാവലൊക്കെ നമുക്ക് ഹാപ്പി ആവും ചില ട്രാവലിലൂടെ നമുക്ക് സാഡാവും പിന്നേ അങ്ങനെ ഇവിടെ കോളേജിൽ നിന്നൊരു ട്രിപ്പ് പോയിരുന്നു ഊട്ടിയിലേക്ക് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഒന്നിച്ചാണ് പോയത് രാത്രിയാണ് പോയത് അതൊരു പ്രത്യേക ഭംഗിയാണ് രാത്രി ട്രാവലിങ് ട്രിപ്പ് പോവാൻ നല്ലൊരു ഭംഗിയാണ് ഒരു ഒരു ഇരുട്ടെന്ന് പറയുന്നത് ഇരുട്ടിലൂടെ ട്രാവെൽ ചെയ്യാൻ എവരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പിന്നേ എന്നിട്ട് അവിടെ കൊറേ സ്ഥലങ്ങളും പിന്നെ കുറേ ഗാർഡൻസ്സൊക്കെ കാണാൻ നമ്മൾ പോയി പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു സങ്കടമാണ് അയ്യോ ഇനി ട്രിപ്പ് കഴിഞ്ഞല്ലോ കോളേജ് ലൈഫ് ഇനി ലാസ്റ്റ് തീരാൻ പോകുന്നു ഒക്കെ അങ്ങനെ ചിന്തിച്ച് കുറച്ച് സങ്കടായിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഒന്നിച്ച് ഒന്ന് ഇടക്കിടക്ക് പോകുന്ന ചില സ്ഥലങ്ങളുണ്ട് അനന്തപുരം ടെമ്പിൾ മധൂർ ടെമ്പിൾ മല്ലം ഇങ്ങനെ കുറേ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് അതൊരു ഒരു മൈൻഡ് ഒരു മൈൻഡ് ശരിയാക്കി എടുക്കാനാണ് പിന്നെ എല്ലാ ട്രിപ്പിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട് ഹാപ്പി ആവാനും ട്രാവലിൻ്റെ ഒന്നിച്ച് പോന്ന് പോയി ഹാപ്പി ആവാനും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് പോയി ഹാപ്പി ആവാനും ചില ട്രിപ്പ് ഒക്കെ അങ്ങനെയാണ് ചില യാത്രകൾ അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് മാറിയെടുക്കുന്നതാണ് നമുക്ക് നമ്മളെ മാനസികാവസ്ഥ അനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് പോവണം കടലിലാണ് കടലിൻ്റെ കരയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും ഇങ്ങനെ കുറേ സ്ഥലത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട് വളരെ ഒരു സമാധാനത്തോടെയാണ് തിരിച്ചുവരാറുള്ളത് കാരണം നമ്മളെ മൈൻഡ് ഹാപ്പി ആയിരിക്കും ഫാമിലി ട്രിപ്പ് പോയാൽ ഫാമിലിക്കാരും ഹാപ്പി ആകും ഇങ്ങനെ ചില യാത്രകൾ നടത്തിയിട്ടുണ്ട്